ചിത്രം വരച്ചു തുടങ്ങുന്നവർക്കും അതുപോലെ അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും അവർ എന്താണ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഉപദേശം എന്നത് നമുക്ക് അതിലേക്കുള്ള ഒരു വിശ്വാസവും നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസവും അതുപോലെ അതിനോടുള്ളൊരു പേഷനും ഉണ്ടായിരിക്കണം നമുക്ക് ചിത്രം വരയ്ക്കാൻ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് ചെയ്യേണ്ട ഒന്നല്ല നമ്മുടെ ഒരിഷ്ടം കൊണ്ടും നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ചിത്ര രചന അല്ലെങ്കിൽ ചിത്രം വരക്കുന്ന ഒരാളായി മാറണം എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് തന്നെ ഉണ്ടാവണം എന്നാൽ നമുക്ക് പെട്ടെന്നു തന്നെ നമുക്കിപ്പോൾ ഏതൊരു ഏതൊരു കഴിവിലും അങ്ങനെ തന്നെയാണ് നമുക്ക് അതിനോടൊരു പേഷനുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്നു തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ചിത്രം വരയ്ക്കുന്നുണ്ടെങ്കിൽ അതിനോട് കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഒരു ഇപ്പോൾ നമുക്ക് വരച്ചു തുടങ്ങിയിട്ട് അതിലൊരു കഴിവുണ്ടെന്ന് തെളിഞ്ഞാൽ നമ്മളൊരു പിന്നെ ചെറുതിലേ കുഞ്ഞുങ്ങൾ കുട്ടിയായിരിക്കുമ്പോൾത്തന്നെ നമ്മൾ ഓരോ ടീച്ചേഴ്സിൻ്റെ അടുത്തു പോയി ഡ്രോയിങ് പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കഴിവുകളെ മെച്ചപ്പെടുത്താനായിട്ട് കഴിയും